ഞാൻ പിന്നെ പ്ലസ് ടു ഹ്യൂമനിട്ടീസ് എടുത്തത് കൊണ്ട് തന്നെ ഈ ചരിത്ര പഠനം എ എനിക്ക് ഭയങ്കരമൊരു ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പം കുട്ടിക്കാലത്ത് സോഷ്യൽ സയൻസ് പഠിക്കുമ്പം അതിൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ചരിത്രം പഠിക്കുമ്പോൾ ആണെങ്കിൽ കൂടിയും എനിക്ക് പെട്ടെന്ന് ഈ ഈ എന്താണ് വർഷങ്ങൾ അതുപോലെ തന്നെ സംഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ ഓർത്ത് വയ്ക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു ഇപ്പം നമ്മടെ ഈ ഇന്ത്യയിലെ തന്നെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എന്താണ് നമുക്ക് ചമ്പാരൻ സമരം അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾ ഉപ്പ് സത്യാഗ്രഹം അതുപോലെ തന്നെ പിന്നെ എന്താണ് നമുക്ക് ആണെങ്കിൽ ഈ നമ്മുടെ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാണ് എത്ര പ്രധാനമന്ത്രിമാരാണ് നമുക്ക് മാറി വന്നത് ഓരോരുത്തരുടെ ഇന്ദിരാഗാന്ധിയുടെ സമയത്താണെങ്കിലും ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി അധികം എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു ഇപ്പം അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്ന ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ആ സമയത്തുള്ള ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ത്രീയെന്ന നിലയിൽ നമുക്ക് ഒരു അയൺ ലേഡി എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടു കൊണ്ടിരുന്നത് ഇന്ദിരാഗാന്ധിനെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി തെരെഞ്ഞെടുത്ത ഇന്ദിരാഗാന്ധി ആ കാലഘട്ടത്തിൽ ഇന്ദരഗാന്ധി എന്തുമാത്രം ബുദ്ധിമുട്ടി അല്ലെങ്കിൽ സ്ട്രഗെൾ ചെയ്താണ് ആ ഒരു നിലയിൽ നമ്മുടെ രാജ്യത്തെ ഭരിച്ചതെന്നും ഏതൊരു വനിതക്കാണെങ്കിലും ഒരു രോമാഞ്ചം കൊള്ളുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അത്